ആരോഗ്യ സംരക്ഷണത്തിനെ സംബന്ധിച്ചിടത്തോളം നഗരത്തിനുള്ളതിനേക്കാളും ഗ്രാമത്തിൽ ആണ് കുറച്ചും കൂടി ഫെസിലിറ്റീസ് കുറവ് അതൊന്ന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ട് വരാൻ സർക്കാരിന് കഴിയുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് പട്ടണം നഗരം എന്നുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല എല്ലാ മനുഷ്യരും എല്ലായിടത്തും ജീവിക്കുന്നത് കൊണ്ട് ഗ്രാമങ്ങളിലേക്കും കൂടുതൽ എല്ലാ എല്ലാ ഉൾഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് ഇപ്പം ആദിവാസി മേഖലകൾ ആണെങ്കിലും അതേപോലെയുള്ള ഉൾഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കൂടുതൽ അവിടുത്തെ ആരോഗ്യനില മെച്ചപ്പെടുത്താൻ നമ്മുടെ ആരോഗ്യസംരക്ഷണത്തിന് കഴിയുമെങ്കിൽ അതൊരു വളരെ നല്ല കാര്യമാണ് അത് സർക്കാറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഗതാഗതത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് എങ്കിലും വഴി റോഡുകൾ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ട് ഇപ്പം നഗരത്തിലാണെങ്കിലും ഗ്രാമത്തിലാണെങ്കിലും പട്ടണത്തിലാണെങ്കിലും ഗതാഗതം വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഇല്ലാത്ത സ്ഥലത്ത് ഇപ്പോൾ നമ്മളുടെ സ്ഥലങ്ങൾ അല്ല എങ്കിലും കുറച്ചുംകൂടി ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പുതിയ പദ്ധതികൾ വന്ന് നല്ല രീതിയിൽ അത് നടപ്പാക്കി നല്ല ഗതാഗത റോഡുകൾ ആക്കിയാൽ ഒരുപാട് ആക്സിഡൻറ്റ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ ഈറോഡുകളൊക്കെ കുഴിയാകുന്നത് പെട്ടെന്ന് പെട്ടെന്ന് മറ്റുള്ള രാജ്യങ്ങളെപ്പോലെ വളരെ പെട്ടെന്ന് അത് നേര നികത്തി നല്ല രീതിയിലാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ലതായിരിക്കും ആക്സിഡൻസും നമുക്ക് കുറയും പിന്നെ വിദ്യാഭ്യാസം സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർക്കാർ വളരെ മുന്നിലാണ് ഇനി കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് ഉബ് ഏറ്റവും കൂടുതൽ സാക്ഷരത നിൽക്കുന്നതും എങ്കിലും ഇനിയും എത്താത്ത ഇനിയും പഠനം സാധ്യമാകാത്ത ആൾക്കാരിലേക്ക് അത് എത്തിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു പദ്ധതി സർക്കാർ ഉണ്ടാക്കുമെങ്കിൽ അത് നടപ്പിലാക്കുമെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്